ഹലോ സാർ റെയിൽവേ സ്റ്റേഷനല്ലേ എനിക്ക് തിരുവനന്തപുരം വരെയൊന്ന് പോകേണ്ടതായ കാര്യം ഉണ്ടായിരുന്നു അപ്പോള് എനിക്ക് എപ്പോഴാണ് ആ ട്രെയിനിൻ്റെ സമയമെന്നും സമയം എപ്പോഴാണെന്നൊന്ന് പറയാമോ അതായത് എനിക്ക് വെളുപ്പിനെ അവിടെ ചെന്ന് ഒരു അഞ്ച് മണിയുടെ ട്രെയിനിന് ചെന്നുകഴിഞ്ഞാല് എനിക്കവിടെ ഒമ്പത് മണിയാകുമ്പോൾ അവിടെ ചെല്ലണം അപ്പോള് അത് ഏതൊക്കെ സ്റ്റേഷൻ വഴിയാണ് പോകുന്നത് എന്നൊന്നറിയണം അത് കോട്ടയത്ത് നിന്ന് നമ്മള് സ്റ്റാർട്ട് ചെയ്തുകഴിഞ്ഞാല് ചങ്ങനാശ്ശേരി ചിങ്ങവനം തിരുവല്ല കായംകുളം കൊല്ലം അങ്ങനെ കുറേ സ്റ്റേഷനുകളില് നിർത്തിയാണല്ലോ പോകുന്നത് അതായത് എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലേണ്ടതുണ്ട് അതുകൊണ്ട് അധികം നിർത്താതെ അതായത് പെട്ടെന്ന് പോകുന്ന ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ട്രെയിനിനാണ് എനിക്ക് പോകേണ്ടത് അപ്പോള് അതിൻ്റെ സമയം എപ്പോഴാണെന്ന് സാറിനൊന്ന് പറയാമോ ആ അതുതന്നെ അപ്പോള് ആ സമയം ഒരു അഞ്ച് മണിക്ക് പോകുന്ന ട്രെയിനെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് എല്ലായിടത്തും നിർത്തി പോകുന്ന ട്രെയിനായതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലാൻ പറ്റില്ല അപ്പോള് നമുക്ക് എനിക്ക് ഒരു സമരവുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരത്തിന് പോകേണ്ടത് അതെ സാർ അപ്പം അപ്പം നമുക്ക് അഞ്ച് മണിക്ക് അഞ്ച് മണിയുടെ ബസ് ട്രെയിൻ ലേറ്റായണോ വരികയുള്ളൂ ആ അത് ലേറ്റാണോ അപ്പോള് എപ്പോഴായിരിക്കും സാധാരണ ബസ് പോകുന്നത് ഒരു ആറു പത്തിന് ആറു പത്തിന്റെ ട്രെയിനിന് പോയാല് അത് അതും എല്ലാ എല്ലാ സ്റ്റേഷനിലും നിർത്തി പോകുന്നൊരു ട്രെയിനാണെങ്കിൽ എനിക്ക് പറ്റില്ല സാർ എനിക്ക് സ്ലീപ്പർ അത് ബുക്ക് ചെയ്ത് പോകേണ്ട ട്രെയിനുണ്ടോ സാറേ ഇത് ആ സ്ലീപ്പർ കോച്ച് ബുക്ക് ചെയ്ത് നമുക്ക് പോകാമോ പെട്ടെന്ന് എത്ര ഒരു ഒമ്പതരയാകുമ്പോള് അവിടെ ചെല്ലണം അപ്പോഴാണ് നമുക്ക് അവിടുത്തെ പരിപാടികള് തുടങ്ങുന്നത് അപ്പോള് അതിന് പോകാനുള്ള സൗകര്യത്തിനാണ് അധികം തിരക്കില്ലാതെ അതായത് നിന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് ഇരുന്ന് നമുക്ക് ബുക്ക് ചെയ്ത് പോകാനുള്ള ട്രെയിൻ വേണം നാല് മണിക്കുണ്ടോ നാലിൻ്റെ ട്രെയിനിന് എന്നാല് ബുക്ക് ചെയ്യാമോ സാറെ ഉം എത്രയും പെട്ടെന്ന് എനിക്കവിടെ ചെല്ലണം നമുക്ക് പ്രോഗ്രാം സ്റ്റാട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കവിടെ ചെല്ലേണ്ടതായിട്ടുണ്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ഒമ്പതരയാകുമ്പോള് അവിടെ ചെല്ലണം അതിൻ്റെ സൗകര്യത്തിന് സാര് ഒന്ന് ബുക്ക് ചെയ്തേക്കാമോ എൻ്റെ പേര് സിന്ധുവെന്നാണ് ആ കോട്ടയം ടു ട്രിവാന്ഡ്രം ബുക്ക് ചെയ്യണം സ്ലീപ്പർ കോച്ച് ബുക്ക് ചെയ്താലും മതി അധികം എനിക്ക് ലോക്കലിൽ പോകാൻ ഭയങ്കരം ബുദ്ധിമുട്ടാണ് കാരണം കാല് വേദനയൊക്കെയുള്ളതുകൊണ്ട് നിന്നുപോകാൻ നമുക്ക് ഭയങ്കരം ബുദ്ധിമുട്ടാണ് അതുകൊണ്ടൊന്ന് ഒന്ന് ബുക്ക് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ആ പെട്ടെന്ന് ചെല്ലുകയും ചെയ്യണം അതായത് പെട്ടെന്ന് എല്ലാ സ്റ്റേഷനിലും നിർത്തുന്ന ട്രെയിൻ വേണ്ട അല്ലാതെ നമുക്ക് ബുക്ക് ചെയ്ത് സാധാരണ ഒരു ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ആ അതെ സാർ ആ ശരി നാല് മണിക്ക് ഓ ആ നാല് മണിയുടെ ട്രെയിൻ ബുക്ക് ചെയ്തേക്കൂ ഓക്കെ